അവിസ്മരണീയമായ യാത്ര എന്ന് പറയുന്നത് പണ്ട് ചെറുപ്പകാലത്ത് ട്യൂഷന് പോയതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ട്യൂഷന് പോകുന്നത് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ നടന്നിട്ട് ചെറുകോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കാട് റബ്ബർ ഒക്കെയാണ് ആ ട്യൂഷൻ ടീച്ചറിൻ്റെ വീട്ടിലേക്കെത്തേണ്ട വഴി അപ്പം ആദ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു പേടിയായിരുന്നു അതെങ്ങനെ അവിടെ എത്തിപ്പെടും എന്നൊള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ മലയും കുന്നുമൊക്കെ കയറി ഒരു കുന്നിൻ്റെ മുകളിലാണ് ടീച്ചറിൻ്റെ ആ ചെറിയൊരു വീടുള്ളത് നല്ല അനുഭവമായിരുന്നു വളരെ നന്നായിട്ട് അവിടുന്ന് പഠിക്കാൻ വേണ്ടി പറ്റി പിന്നെ ഈ സാഹസിക യാത്രയാണിത് ശരിക്കും ദിവസേന പോവുമ്പോൾ ശരിക്കും സാഹസിക യാത്ര തന്നെയാണ് അപ്പം അതിൽ നിന്നൊരുപാട് കാര്യങ്ങൾ പഠിച്ചു ക്ഷമ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മള പേടിയൊക്കെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയൊക്കെ സാധിക്കും ആ കുന്ന് കയറി കഴിഞ്ഞിട്ട് ആ കാട്ടിലോട്ട് നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു അഡ്വഞ്ചറസ് യാത്രയും നന്നായിട്ട് നയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു വളരെ സാഹസികമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു അത് ചെറുപ്പകാലത്ത് പക്ഷേങ്കിൽ കൂട്ടുകാരൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു പ്രകൃതിയെ ആസ്വദിച്ചിട്ട് പോവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ശരിക്കും പറയുക വെച്ചാൽ ഒരു നല്ല കാ നല്ല കാലം